ഹലോ നിങ്ങൾ എവിടെയാണ് എത്ര നേരമായി ഞാൻ ഇത് ഓർഡറ് ചെയ്തിട്ട് ഇതുവരെ സാധനം വന്നിട്ടില്ലല്ലോ ഞാൻ ഒരു മണി ആയപ്പോൾ ആപ്പിൽ കാണിച്ചതാണ് ഒരു മണി ആയപ്പോൾ വരുമെന്നാണ് ആപ്പിൽ ഇൻ്റിക്കേഷൻ ഉണ്ടായത് അത് വച്ച് ഞാൻ ട്രാക്ക് ചെയ്ത് ഇരിക്കുകയായിരുന്നു ഞാൻ ചിക്കൻ ബിരിയാണിയുടെ കൂടെ ഞാൻ ചിക്കൻ സിക്സ്റ്റി ഫൈവും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശരിക്കും ഇപ്പോൾ എവിടെയാണ് എത്താനായോ ഇതിനി എത്ര സമയത്തിനുള്ളിൽ എത്തും കറക്ട് ടൈമിലാണ് സാധനം വരികയെന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഓർഡറ് തന്നെ തന്നത് ഓർഡറ് തന്നെ തന്നത് ഇനി എത്ര നേരം എടുക്കും നിങ്ങൾ വരാൻ ഇപ്പം എത്തുമോ എങ്ങനെയാണ് ഇനി ട്രാഫിക്കിൽ വല്ലതും പെട്ട് പോയതാണോ എനിക്ക് നല്ല വിശപ്പുണ്ട് നിങ്ങൾ പെട്ടെന്നൊന്ന് വരുമായിരുന്നു നന്നായിരുന്നു